എൻ്റെ ഓർമ്മയിൽ എൻ്റെ ശേഖരത്തിൽ സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ എന്നിവയെല്ലാം നിറഞ്ഞതാണ് എൻ്റെ ശേഖരം എന്നു പറയുന്നത് എന്നാലതിൽ എനിക്ക് ഏറ്റവും പ്രീയപ്പെട്ടത് എന്നു പറയുന്നത് കല്ലുകളും നാണയങ്ങളുമാണ് അതായത് എൻ്റെ അച്ഛനും മറ്റും ഒരു പുതിയ നാണയം ഇറങ്ങുകയാണ് അല്ലെങ്കിൽ വളരെ പഴക്കമുള്ള നാണയങ്ങളും മറ്റും കാണുമ്പോൾ അതെനിക്കായി സൂക്ഷിച്ചു വെക്കുകയും അതുപോലെ തന്നെ എനിക്ക് അതിലൂടെയാണ് ആ അച്ഛൻ മറ്റും നാണയം ഇതുപോലെ സ്പെഷ്യൽ നാണയങ്ങൾ അതായത് പുതിയ ഡിസൈനുകളിലും മറ്റും വരുന്ന നാണയങ്ങളും അതുപോലെ തന്നെ നല്ല കളറിൽ പ്രത്യേകിച്ച് അഞ്ചു രൂപയുടെ ഗോൾഡൻ കളറിലുള്ള നാണയങ്ങളും മറ്റും എനിക്കായി സ്വരൂപിച്ച് വെക്കുകയും എനിക്കായി തരികയും ചെയ്തു അത് കുടുക്കയിലും മറ്റും ഇട്ടു ഞാൻ അത് സൂക്ഷിച്ചു വെക്കും അതിൻ്റൊരു ശേഖരം തന്നെ ഉണ്ടാക്കുകയും ചെയ്തു അതുപോലെതന്നെ കല്ലുകൾ ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിൽ ചാപ്പിളിന് ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്ന മിനുസമുള്ള കല്ലുകളായിരുന്നു അത് ആ കല്ലുകളെല്ലാം ഞാൻ സൂക്ഷിച്ച് എടുത്തു വെച്ചിരുന്നു ആ കല്ലുകൾ കൊണ്ട് ഞാൻ ഞാൻ ധാരാളം വർക്കുകളും മറ്റും ചെയ്തിരുന്നു അത് ഒരോർമ്മപ്പെടുത്തലുകളിലൂടെയാണ് അതായത് സ്കൂൾ കാലഘട്ടത്തിൻ്റെ മധുരം നിറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത് അത്തരത്തിലുള്ള ഓർമ്മകൾ എന്നെ പിന്നീടും നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ശേഖരം വീണ്ടും വീണ്ടും എടുത്തു നോക്കുന്നതിലൂടെ ആണെന്നു പറയാൻ സാധിക്കും അതായത് സ്റ്റാമ്പുകളും നാണയങ്ങളും ശേഖരങ്ങളും എന്ന് എന്ത് എന്നീ തരത്തിലുള്ള ശേഖരണത്തിലെ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രീയപ്പെട്ടത് എന്നു പറയുന്നത് നാണയങ്ങളാണ് നാണയങ്ങൾ നമുക്ക് ഏറ്റവും പ്രീയപ്പെട്ടതാണ് ഏതൊരവസരത്തിലും അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറിയാൽപ്പോലും നമുക്ക് നാണയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ എന്താ ആവശ്യകത നിറഞ്ഞ സാധനമാണ് അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുവാനും പിന്നീട് ഉപയോഗിക്കുവാനും കഴിയുന്ന ഒന്നാണ് നാണയം അതിൻ്റെ നോട്ട് മാറുന്നതുപോലുള്ള നിരവധി പ്രശ്നങ്ങളൊന്നും ഈ ഒരു കാര്യത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ലാത്തതുകൊണ്ട് തന്നെ നാണയങ്ങളെന്നും നമുക്കൊരു മുതൽ കൂട്ടുകൾ തന്നെയാണ് പണ്ടു ഞാൻ നാണയങ്ങൾ സ്വരൂപിച്ചു വെക്കുകയും പിന്നീടത് നോട്ടാക്കി മാറ്റുകയും ഒറ്റ നോട്ടായിട്ട് അതായത് ഇരുന്നൂറോ മുന്നൂറോ ആയിട്ടുള്ള ചില്ലറകൾ കൂട്ടി വെക്കുകയും പിന്നീടത് കടകളിലും മറ്റും പോയിട്ട് അത് നാണയങ്ങളാക്കി മാറ്റുകയും അത്തരത്തിലുള്ള എന്താ പരിപാടികളും മറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നാണയങ്ങളെന്നു പറയുന്നത് നമുക്കെപ്പോഴും ഒരു മുതൽ കൂട്ടാണ് ഒരു തുള്ളി പെരുവെള്ളം എന്നു പറയുന്നത് പോലെതന്നെ അത് കൂട്ടി വെക്കുന്നതിലോടുകൂടി ഒരു ഹ്യൂജ് തുക ഒരു വലിയ തുക നമ്മളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ധാരാളം ചില്ലറകളും മറ്റും നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിലൂടെ നമുക്ക് ഒരു വലിയ തുകയിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്നു ഒരു വലിയ തുകയിലേക്ക് ഒറ്റയടിക്കെത്തുന്നതിലും ഏറ്റവും നല്ലത് അത് ചെറിയ ചെറിയ ഗഡുക്കളായിട്ട് സൂക്ഷിച്ചു വെച്ച് അത് വലിയൊരു തുകയായി മാറ്റുന്നതാണ് അതുകൊണ്ടാണ് എൻ്റെ ശേഖരത്തിലേറ്റവും പ്രീയപ്പെട്ടത് നാണയങ്ങളാണെന്നു ഞാൻ പറയുന്നത്